ആ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് തന്നെ ഒര് മാതൃമല എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട് അവിടേയ്ക്ക് യാത്ര ചിലവുകളങ്ങനെ നമ്മൾ വണ്ടിയുടെ ഇന്ധന ഇന്ധനച്ചിലവ് മാത്രമേ വരു വരുന്നുള്ളു പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് കൂടുതലും അതിന് അവിടെ വ്യൂ വ്യൂ ആണുള്ളത് മെയിനായിട്ട് അതിന് അവിടെ വേറെ ചിലവുകളൊന്നും വരുന്നില്ല അടുത്തതായി ഇല്ലിക്കൽ കല്ല് ഇല്ലിക്കൽ കല്ല് നമ്മള് ട്രാവല് ചെയ്ത് പോവുമ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറേ കാണാനും ഉണ്ട് നമ്മള് നമ്മടെ ഫുഡിൻ്റെ അതെല്ലാം അതൊരു ഒരു പൈസയാകും ഒര് എറൌണ്ട് തൌസൻ്റ് റ്റു തൌസൻ്റ് ഇടയില് നിൽക്കും പിന്നെ അരുവിക്കുഴി വാട്ടർ ഫാൾസ് അതും ഏകദേശം തൌസൻ്റ് റ്റു തൌസൻ്റ് അപ്പോൾ എറൌണ്ട് ഞാൻ പറയുകയാണെങ്കില് ഇതിലെല്ലാം പോകുമ്പോഴ് അത്രയും ഒരു ബഡ്ജറ്റ് ബഡ്ജറ്റിലായിരിക്കും നിൽക്കുന്നത് നിൽക്കുക അതിൽ കൂടുതല് എന്തായാലും പോകില്ല അതൊരു മിഡ്റേഞ്ച് അങ്ങനൊരു ആ ഒര് ഇതിലായിരിക്കും നിൽക്കുക അതാണ് എനിക്ക് പറയാനുള്ളത്